പൂർണ്ണമായി സ്കാൻ ചെയ്ത് കൊണ്ട് അതിൽ നിന്ന് സ്കാനിങ്ങിലൂടെ തന്നെ അതിൽ പള്ള ആയത് അതുപോലെ മറ്റു കേടുപാടുകൾ ഉള്ളതെല്ലാം ഒഴിവാക്കി വളരെ നല്ലതായ വളരെ എന്ത് ഉപയോഗപ്രദമായ വിത്തുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ

അവയെ വിത്തുകളെ കൂടുതൽ എന്ത് ഉൽപാദനശേഷി ഉള്ളതാക്കുവാൻ അതിൻ്റെ പുറത്ത് കൂടെ

വിൽക്കാത്ത നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ കൃഷി ഇടത്തിൽ തന്നെ നാം കൃഷി ചെയ്യുകയും പിന്നീട് അവയിലേക്ക് ഇടയ്ക്ക് ഇടയ്ക്ക്